രണ്ട് ഏഴ് രണ്ടായിരത്തി അഞ്ച് പതിനേഴ് പത്ത് രണ്ടായിരത്തി അഞ്ച് മൂന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി ഏഴ് പത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഇരുപത്തിനാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല്